ഇന്ത്യയിലെന്നു വച്ചാൽ കേരളത്തിലിപ്പോൾ പ്രധാനമായിട്ട് തൃശ്ശൂരിൽ നടക്കുന്ന തൃശ്ശൂർപ്പൂരം വലിയ ഒരുത്സവം ആണ് അതുപോലെ വർഷങ്ങളിൽ ഒരിക്കൽ നടക്കുന്ന ശ്രീ വള്ളിയൂരമ്മ വള്ളിയൂർക്കാവിലെ മഹോത്സവം അത് വലിയ അത് ഒരുപാടാൾക്കാർ കൂടിയിട്ടുള്ളൊരു ഉത്സവം തന്നെയാണ് പിന്നെ അതുപോലെ അവധി ദിനങ്ങളെന്നു പറയുമ്പോൾ അവധി ദിനങ്ങളെന്നു പറയുമ്പോൾ ബക്രീത് അതുപോലെ ഓണം വിഷു ഇവയൊക്കെ അവധി ദിവസങ്ങളാണിവിടെ